ഞാൻ ഓൺലൈൻ വഴി സെക്കൻഡ് പ്രൊഡക്ടായി വാങ്ങിയത് ഒരു ഹെയർ ജെല്ലായിരുന്നു ഈ പ്രൊഡക്ടിൻ്റെ റിവ്യൂവും അത്യാവശ്യം നല്ലൊരു ബ്രാൻഡും തന്നെയായിരുന്നു അത് പക്ഷേ അതുപയോഗിച്ചപ്പോൾ എൻ്റെ തലമുടിയൊക്കെ വേഗം പൊട്ടിപ്പോകുവാൻ തുടങ്ങി അതുപോലെതന്നെ മുടിയുടെ കരുത്തും വേഗം തന്നെ നഷ്ടപ്പെട്ടു തുടങ്ങി പിന്നെ ഒരുപാട് സമയമൊന്നും ഇത് തലമുടിയിൽ സെറ്റ് ആയി നിൽക്കുകയില്ലായിരുന്നു വേഗം തന്നെ അത് മുടിയുടെ ടെക്സ്ചറൊക്കെ മാറ്റി പഴയതുപോലെ തന്നെ ആക്കുമായിരുന്നു മാത്രമല്ല തീർത്തും ഒരു മോശം പ്രൊഡക്ടാണെന്ന് പറയാൻ കാരണം ഇത് ഒരു മെഴുക് പോലെ ആയിരുന്നു ഈ തലമുടിയിൽ ഒര് മോശമായ ഒരു മണവും ഉണ്ടാക്കും ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല ഇത് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുണ്ട് അതായത് തലവേദന പോലെയൊക്കെ എനിക്കിത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ തോന്നുമായിരുന്നു പിന്നെ വീണ്ടും ഉപയോഗിക്കാൻ പറ്റാത്ത തരം ഒരു മോശം പ്രൊഡക്ട് തന്നെ ആയിട്ട് എനിക്ക് ഇത് തോന്നിയിട്ടുണ്ട്